ആ അതുതന്നെ കോച്ചിംങ്ങിന് വന്നതല്ലേ അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഒന്ന് ട്രയൽ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കോച്ചിങ്ങിൻ്റെ ഡീറ്റൈൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞ് തരാം നമുക്ക് ഇപ്പോൾ ഡെയിലി രണ്ട് സെക്ഷനാണ് ഉള്ളത് രാവിലെ മോർണിംഗ് സെക്ഷനുണ്ട് ഈവെനിംഗ് സെക്ഷനുണ്ട് അപ്പോൾ രാവിലെ വർക്ക് ഔട്ട് ആണെങ്കിൽ വൈകിട്ട് ജസ്റ്റ് വാർ വാർമിംഗ് മാത്രമെ ഉണ്ടാവുകയുള്ളു വാർമിംഗ് അത് ജസ്റ്റ് അത് അപ്പോൾ തീരുമാനിച്ചിട്ട് എങ്ങനെ വെച്ചാൽ തരികയാണ് ചെയ്യാറ് ആ മന്തിലി ആ അതൊക്കെ ഒരു അഞ്ഞൂറ് ആ റേറ്റ് ഉണ്ടാകും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മൾ അത് മൈനസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കളിച്ച് കുറെ പേര് അങ്ങനെ പോയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റും ഡിസ്ട്രിക്ട്ടും ഒക്കെ പോയിട്ടുണ്ട് കുറച്ച് പേര് ഐയെസ്എൽ കളിക്കുന്നവരുമുണ്ട് നമുക്ക് നല്ലൊരു ഉള്ളതാണ് അതേ അല്ലേ അപ്പോൾ അതേ അല്ലേ അപ്പോൾ സ്കൂളിലൊക്കെ കളിക്കാറുണ്ടായിരുന്നോ പോയിട്ടുണ്ടല്ലെ അപ്പോൾ കുഴപ്പമില്ല അറിയുന്ന ആളാ അപ്പോൾ ഏത് പൊസിഷനിലാണ് കളിക്കാറുള്ളത് മിട് ആണോ ബാക്ക് ആണോ അതോ ഗോളി ഓക്കേ ഡിഫെൻസ് ആണല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ എവിടെ വീട് എവിടെയാണ് അപ്പോൾ പോയി വരാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഹോസ്റ്റൽ സംവിധാനം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് വർക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാം നമുക്ക് പഠിക്കുവാണെങ്കിൽ ഇവിടെ തന്നെ നിന്ന് പഠിക്കാവുന്നതാണ് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് അതേപോലെ ഫുഡ് ആൻഡ് ഫുഡ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആ അത് കുറച്ച് കുറച്ചേ ഉണ്ടാവുകയുള്ളു ബാക്കി നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ഇത് തരുന്നായിരിക്കും സ്പോൺസർ ഉണ്ടാകും സ്പോൺസറെ കിട്ടുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ റൂംസൊക്കെ നമ്മള് ഇവിടുന്ന് എടുക്കണ്ടായിരിക്കും കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും അതെ ഞാൻ തന്നെയാണ് ഞാനും പിന്നെ എൻ്റെ കൂടെ രണ്ട് അസിസ്റ്റൻസും ഉണ്ട് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്തായാലും ഇങ്ങനെയാണ് വർക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ തന്നെ ജിമ്മും കാര്യങ്ങളും വരുന്നുണ്ട് രണ്ടും വർക്ക് ഔട്ടും ഒരുമിച്ച് കൊണ്ടുപോകാവുന്നതാണ് ഡ്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതില് മേടിക്കുവാണെങ്കില് എക്സ്ട്രാ പൈസ വരും അല്ലെങ്കിൽ നിങ്ങള് പുറത്തുന്ന് മേടിക്കുവാണെങ്കില് അതേ അല്ലേ അപ്പോൾ നമുക്ക് ജേഴ്സിൻ്റെയും ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതിന് എന്താണ് നമുക്ക് സൈസ് നോക്കിയിട്ട് തീരുമാനിക്കാം അത് അത് നിങ്ങൾക്ക് ഇവിടെ സൈസ് കാര്യങ്ങളൊക്കെ തന്നാൽ മതി അതല്ലാ നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കുവാണെങ്കിൽ അവിടെ പറഞ്ഞ കണക്ക് അവിടെ പോയി മേടിച്ചാലും മതി അങ്ങനെയാണ് നമുക്ക് അന്ന് ഇനിയിപ്പോൾ ഈ ആഴ്ച പറ്റില്ല ഈ ആഴ്ച തിരക്കും മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീക്ക് തൊട്ട് വന്നാൽ മതി

ആ രാവിലെ ഉണ്ടാകും ആ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലല്ലേ അപ്പോൾ രാവിലെ ഡെയിലി ഉണ്ടാകും ഒരു ആറ് മണി തൊട്ട് ഉണ്ടാകും ആറ് മണി ആറര തൊട്ട് ഒരു ഏട്ടര ആ ടൈം വരെ ഉണ്ടാകും അതുകഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്താണ് അത് വർക്ക് എങ്ങനെയാണോ വർക്ക്ഔട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മള് ഷെഡ്യൂൾ ചെയ്യും രാവിലെ വാംഅപ്പ് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരത്ത് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ ഇതാക്കി തരാം

അഡ്മിഷൻ ഫീസ് സ്റ്റാർട്ടിങ് തുടക്കം ഒരു ആയിരത്തി അഞ്ഞൂറ് വരും പിന്നെ മന്ത്ലി ആയിരം രൂപ വരും ഇതില് ഫുഡ് ആൻഡ് അക്കൗമഡേഷനും വരും പിന്നെ നിങ്ങൾക്ക് മൈനസ് മറ്റേ സ്പോൺസർ കിട്ടുവാണെങ്കിൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും അതുതന്നെ സ്പോൺസർഷിപ്പ് അതന്നെ അതൊക്കെ വേറെ നന്നായി കളിക്കുവാണെങ്കിൽ നമ്മള് പ്ലയേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കാണ് നന്നായി കളിക്കുന്നൊരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടും നമുക്ക് നമുക്ക് അത് എന്തായാലും ഇതിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും സ്പോൺസർഷിപ്പ് എന്തായാലും ഉണ്ടാകും അതിപ്പോൾ കിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും നന്നായി കളിക്കുവാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് അതിന് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കേ ശരി ശരി